ആ എനിക്ക് ഒരുപാടിഷ്ടം ഉള്ളൊരു കാര്യമായിരുന്നു പണ്ടെൻ്റെ റേഡിയോ റേഡിയോകൾ റേഡിയോ കേൾക്കുന്ന എനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ രാവിലെ ഉണർന്നിരുന്നത് റേഡിയോ കേട്ടു കൊണ്ടാണ് എൻ്റെ അമ്മച്ചി എനിക്ക് ഞങ്ങൾ ഉണരുന്നതിനു മുൻപു തന്നെ റേഡിയോ ഓണാക്കും റേഡിയോയിലാദ്യം തന്നെ ആ റേഡിയോ സ്റ്റ സ്റ്റേഷൻ തുറക്കുന്നതിൻ്റെ നല്ലൊരു മ്യൂസിക്കുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു സംഗീതം കേട്ട് കൊണ്ടായിരുന്നു ഉണർന്നു കൊണ്ടിരുന്നത് അതു പോലെ തന്നെ അതിൻ്റ കൂടെ കഴിയുമ്പം തന്നെ തന്നെ സുഭാഷകം തുടങ്ങും പിന്നെ ഉദയഗീതം അതു കഴിഞ്ഞിട്ട് പ്രഭാതഭേരിയെന്നും പറഞ്ഞ് ഒരു പ്രോഗ്രാമുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പ്രാദേശിക വാർത്തകൾ അങ്ങനെ ഒരുപാട് ഒരുപാടിഷ്ടപ്പെട്ട ഒരുപാട് പ്രോഗ്രാമുകൾ റേഡിയോയിലുണ്ടായിരുന്നു റേഡിയോ ഇരുന്ന് ഇങ്ങനെ ശ്രദ്ധയോടെ കേൾക്കുന്ന ആളായിരുന്നു ഞാൻ അതു പോലെ തന്നെ രാത്രിയിൽ ഇന്നത്തെ പോലെ ടീ വിയോ സംവിധാനങ്ങളൊന്നും അന്നില്ലാതെയിരുന്നതു കൊണ്ട് ചലച്ചിത്ര ഗാനം കേൾക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം രാത്രി രഞ്ജിനി കേൾക്കാൻ അതു പോലെ ചിത്ര ചിത്രമഞ്ജരി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു റേഡിയോയിൽ പിന്നെ റേഡിയോയിൽ കഥാപ്രസംഗം നാടകം സിനിമ ഇതെല്ലാം റേഡിയോയിൽ കൂടെയായിരുന്നു കേട്ടു കൊണ്ടിരുന്ന അന്നൊക്കെ സിനിമയുടെയൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിൽ സിനിമയിലെ ശബ്ദരേഖ കാണും ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്ക് ഒന്നര രണ്ടു മണിക്കൊക്കെ അപ്പം അതൊക്കെ തന്നെ കേട്ടു കൊണ്ടിരിക്കുകയായിരുന്നു റേഡിയോ കേൾക്കുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു റേഡിയോയും കൊണ്ട് ഞാനപ്പം പറമ്പിലോ അതു പോലെ തന്നെ തോട്ടിൽ തുണി അലക്കാനൊക്കെ പോകുമ്പം റേഡിയോയും കൊണ്ടു പോകുമായിരുന്നു റേഡിയോ കൊണ്ട് വെച്ചു കൊണ്ടിരുന്നു കൊണ്ടായിരുന്നു തുണി അലക്കുന്നതും ഓരോ ജോലികളൊക്ക ചെയ്യുന്ന അത്രക്കിഷ്ടമാണ് അതു പോലെ തന്നെ എൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഞങ്ങൾ നാല് മക്കളും അമ്മയും പകലും എല്ലാ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന സമയത്തെല്ലാം ഞങ്ങൾ റേഡിയോ ഞങ്ങളുടെ അടുത്തു കൊണ്ടു വെക്കുകയായിരുന്നു അന്നൊക്കെ ബാറ്ററി ഇടുന്ന റേഡിയോ ആയിരുന്നില്ല ഇന്നത്തെ പോലെ കരണ്ട് കുത്തുന്നതല്ലല്ലോ അതു കൊണ്ടു തന്നെ റേഡിയോ ഞങ്ങളുടെ അടുത്തു കൂടി കൊണ്ടു നടന്ന് ഞങ്ങൾ കേൾക്കുന്ന കേൾക്കുന്നയാൾക്കാരായിരുന്നു റേഡിയോയോടൊരുപാട് ഇഷ്ടമായിരുന്നു റേഡിയോ കേൾക്കുന്നതന്നും ഇന്നും ഇഷ്ടമാണ് എല്ലാം പിന്നെ കൂടുതലിപ്പം റേഡിയോയുടെ ഉപയോഗം കുറഞ്ഞു വരുന്നതു കൊണ്ടും എങ്കിലും ഇപ്പോഴും എൻ്റടുത്ത് റേഡിയോ ഇരിപ്പുണ്ട് ഞാനിടക്ക് റേഡിയോ ഓണാക്കി കേൾക്കാറും ഉണ്ട് കൊച്ചി എഫ് എം അതു പോലെയുള്ള നല്ല നല്ല പരിപാടികളൊത്തിരി ഒത്തിരി നല്ല പ്രോഗ്രാമുകളിപ്പോൾ ഉള്ളത് ഇപ്പോഴും ഉണ്ടല്ലോ റേഡിയോയിൽ അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും റേഡിയോ അതു പോലെ തന്നെ അതിൻ്റെ ആ പുതുമ നഷ്ടപ്പെടാതിപ്പോഴും ആളുകളൊത്തിരി പേര് ഉപയോഗിക്കുന്നവരുണ്ട് റേഡിയോ ഞാനും കേൾക്കാറുണ്ട് റേഡിയോയിലെ പാട്ട് കേൾക്കാൻ വേണ്ടി രാത്രി ഉറക്കം വന്നാലും ഉറങ്ങാതെ കണ്ണൊക്കെ വലിച്ചു തുറന്നു വെച്ചു കൊണ്ട് ഈ ചലച്ചിത്ര ഗാനം കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടങ്ങനെ കാത്തിരിക്കുമായിരുന്നു രാത്രി ഒൻപതരയുടെ ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പാട്ട് കേട്ടും അതു പോലെ തന്നെ റേഡിയോയിലൊരുപാട് കാര്യങ്ങൾ അന്നത്തെയൊക്കെ അന്ന് റേഡിയോ വഴിയാണെല്ലാ അറിവുകളും നമുക്ക് കിട്ടുന്നതും കേൾക്കുന്നതും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗാന്ധിമാർഗ്ഗം ഉണ്ട് അതു പോലെ തന്നെ ശനിയാഴ്ച രാവിലെ കൊച്ചി എഫ് എമ്മിൽ ശനിദശയുണ്ട് അങ്ങനെ എനിക്ക് ചില ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകളുണ്ടായിരുന്നു അതു പോലെ ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ റേഡിയോയിലിഷ്ടമുള്ളൊരു പ്രോഗ്രാമെന്നു പറഞ്ഞാൽ കൊച്ചി എഫ് എമ്മിലെ ജോയി ആലുക്കാസിൻ്റെ ആശാ ചേച്ചി ആശാലതയും ബാല ബാലകൃഷ്ണനെന്നു പറയുന്നൊരാൾ രണ്ടു പേരും കൂടി ചേർന്നുള്ളയൊരു പ്രോഗ്രാമുണ്ടത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഞാനൊരു ആ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ട് പതിനെട്ട് വർഷത്തോളമായിട്ട് ഞാനത് കേൾക്കാറുണ്ട് എനിക്കത്ര ഇഷ്ടം ഉള്ളൊരു പ്രോഗ്രാമാണത് റേഡിയോയോടുള്ള ഇഷ്ടം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല ഇപ്പോഴും കേൾക്കാറുണ്ട് റേഡിയോ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണെൻ്റെ വീട്ടിലിപ്പോഴും റേഡിയോ ഉണ്ട് വർഷങ്ങളിലാ വർഷങ്ങൾ പഴക്കമുള്ള റേഡിയോയാണ് പക്ഷെ കാസറ്റിട്ട് പാട്ട് കേൾക്കുന്നതും അതു പോലെ തന്നെ അതിൻ്റെ കൂടെ റേഡിയോ കേൾക്കുന്നതായിട്ട്